അതെ ഇന്ന് എന്താ വിഷയം ഇത് കുട്ടികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇനി ഇച്ചിരി കൂടിയുണ്ട് അത് അക്കപ്ലിഷ് ചെയ്യാൻ എങ്ങനെ ഫീഡ്ബാക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഞാനിപ്പോൾ സി പിയ് പ്ലസ് സി പി പി പഠിപ്പിച്ചു ഇവരിത് അറൗണ്ട് ഒരു അറുപത് പേരുണ്ട് ആ കുഴപ്പമില്ല ഐ മീൻ ആ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തതാണ് പക്ഷേ ചിലപ്പം അത് ചില ഭാഗത്തൊക്കെ കുറേ ആ അത് മോശം അഭിപ്രായവും ആ റീവ്യൂസും ഉണ്ട് ഉണ്ട് കുറച്ച് ഇത് കുറച്ചേരിയാസിലൊക്കെ ഉണ്ട് പിന്നേ പിന്നെയൊരു കാര്യം ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെ ഇവാല്യുവേഷന് വിളിക്കുന്നുണ്ടോ ആ എല്ലാ ടീച്ചേസ്നും കൂടി ഒരു ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു ഇത് ഇവാല്യുവേറ്റ് ചെയ്യാൻ അതിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ടീച്ചറിന് റിവ്യൂസൊക്കെ എങ്ങനെയാണ് കുട്ടികളൊക്കെ എങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയാസാണ് ഇപ്പോൾ അങ്ങനെ മൂവോൺ ചെയ്യാം ആ അങ്ങനെയാണ് നല്ല നല്ലരു ഐഡിയ എക്സ്ട്രാ ക്ലാസ് വെക്കാം കുറേ മോശം പിള്ളേരുണ്ടാവും എന്താ നല്ല മാർക്സ് കിട്ടാണ്ടിരിക്കുന്ന പിള്ളേരുണ്ടാവും അത് അവരെ നമുക്ക് എയിം ചെയ്യാം അവർക്ക് എന്ത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് ലക്ഷ്യം ഭാവിയിൽ നല്ല ആ ഓക്കെ ബൈ